എൻ്റെ ഗ്രാമത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ എൻ്റെ ഗ്രാമത്തില് എനിക്ക് ഏറ്റവും ഇഷ്ടമായതെന്ന് തോന്നുന്നത് അവിടുത്തെ ജനങ്ങളാണ് എന്തുകൊണ്ടും സഹകരണവും ഒത്തൊരുമയുമുള്ള ജനങ്ങള് എന്റെ നാടൊരു ചെറിയ ഗ്രാമമാണ് അഥവാ ഒരു സൈഡിൽ വയലും മറ്റൊരു സൈഡിലൊരു മലയുമായിട്ടുള്ള ചെറിയയൊരു ഗ്രാമം അതുപോലെ തന്നെ എൻ്റെ ഗ്രാമത്തിൻ്റെ എൻ്റെ ഏരിയയില് ഒരു ഹോസ്പിറ്റൽ അതൊരു ഹോമിയോപ്പതി ഹോസ്പിറ്റലും അതുപോലെ തന്നെ ഒന്ന് രണ്ട് ഒരു മൂന്നോ നാലോ ഹൈന്ദവ വിശ്വാസികളുടെ വീടും മറ്റു ഒരു നാലോ അഞ്ചോ മുസ്ലിം വീടുകളും പക്ഷേ യാതൊരു തരത്തിലുള്ള മതലഹളകളോ മറ്റു മതത്തിൻ്റെ പേരിലുള്ള പ്രശ്നങ്ങളോ ഒന്നുമില്ല പള്ളി സമീപത്തില്ലെങ്കിലും കുറച്ചകലെയാണെങ്കിലും സമീപത്തൊരു അമ്പലമുണ്ട് അമ്പലത്തിലുള്ള ഉത്സവം എല്ലാവർക്കും പ്രിയമാണ് അമ്പലത്തിലുള്ള ഉത്സവവും അതുപോലെത്തന്നെ ഓണാഘോഷ പരിപാടികളും അതുപോലെത്തന്നെ പെരുന്നാളിൻ്റെ ആഘോഷം എല്ലാവരും ഒന്നിച്ചാണ് പങ്കുചേരാറുള്ളത് എല്ലാ സന്തോഷങ്ങളിലും ആർക്കും ഒന്നും ഒരു പ്രശ്നമില്ല പിന്നെ എൻ്റെ നാടിൻ്റെ ഏറ്റവും വലിയ ഭംഗിയെന്നുള്ളത് എൻ്റെ നാടിൻറെ വയലാണ് എൻ്റെ നാടിന് തൊട്ടരികത്തുള്ളത് അതുപോലെ തന്നെ അതിൻ്റെ മുകളിലുള്ള ഒരു ചെറിയ മലയും ആ മലയ്ക്ക് മുകളിലുള്ളൊരു ഒരു ഗ്രൗണ്ടും ചെറിയയൊരു പഞ്ചായത്ത് ഗ്രൗണ്ട് ആ ഗ്രൗണ്ടില് വൈകുന്നേരങ്ങളിലുള്ള കളിയാണ് ഏറ്റവും എന്നെ പോലെയുള്ള എന്നെ പോലെയുള്ള കുട്ടികൾക്ക് ഏറ്റവും എനർജി നൽകുന്നത് ഓരോ വീട്ടിലും ഓരോ വീട്ടിലും എന്തിനും എല്ലാവരും പരസ്പരം സഹകരിക്കും അതാണ് എന്റെ നാടിന്റെ ഏറ്റവും വലിയ ഭംഗി നാടിൻ്റെ ഭംഗിയെക്കാള് നാടിന് മുഖച്ഛായ നൽകുന്നത് നാട്ടുകാരാണ് അതുപോലെ തന്നെ മറ്റൊന്ന് എൻ്റെ നാട്ടില് എൻ്റെ നാടിൻ്റെ ഹോസ്പിറ്റല് അതുപോലെ തന്നെ അവിടെയുള്ളൊരു ലോഡ്ജുണ്ട് പുതുതായി വരുന്നയാളുകളൊക്കെ പെട്ടെന്ന് അഡാപ്റ്റായി വരും നമ്മുടെ കൾച്ചറിലേക്ക് ഏകദേശം ടൗണിൽ നിന്നും ഒരു ഒരു കിലോമീറ്റര് മാറിയാണ് എൻ്റെ ചെറിയയൊരു കുഗ്രാമം വസിക്കുന്നത് ഏകദേശം ഇരുപത് മുപ്പത് മീറ്ററിനുള്ളിൽ തന്നെ ഓരോ വീടുകളും ഇരുപ്പത് മീറ്ററിനുള്ളിൽ തന്നെയെ ഓരോ ഓരോ വീടുകള്ക്കിടയിലുള്ള ഗ്യാപ്പുള്ളൂ അതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും നമ്മളൊരു സഹായം ചോദിച്ചാൽ ആരും ഒഴിവാക്കില്ല എല്ലാ കാര്യത്തിനും ഒത്തൊരുമയിലാണ് എല്ലാവരും മുന്നിട്ടിറങ്ങാറുള്ളത് അത് നാടിൻ്റെ ആവശ്യത്തിനാണെങ്കിലും പേഴ്സണൽ ആവശ്യത്തിനാണെങ്കിലും